ഐഫോണിൻ്റെ മെയിൻ നെഗറ്റീവ് വച്ചാൽ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് തന്നെയാണ് ബാറ്ററി ബാക്കപ്പ് തീരെ ഇല്ലാത്തൊരു ഫോണാണ് ഐഫോൺ അതുകൊണ്ട് തന്നെ നമുക്കൊരു കണ്ടിന്യൂസ്ലി ഒന്നും യൂസ് ചെയ്യാൻ കഴിയില്ല ഫോൺ ഒരു ഒരു മിനിമം ടൈം വരെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുള്ളു അപ്പോഴേക്കും ബാറ്ററി ഡൗണാവും പിന്നെ വച്ചാൽ ഭയങ്കര എക്സ്പെൻസീവാണ് ഒരു സാധാരണകാർക്ക് ഈ ഐഫോൺ താങ്ങാൻ കഴിയില്ല ഇതിൻ്റെ ഓരോ അപ്ഡേഷൻ കഴിയുന്തോറും പൈസ കൂടിക്കൂടി വരുന്നതല്ലാതെ ഒരു കുറവ് വരുന്നില്ല പക്ഷേ വലിയ മാറ്റങ്ങളൊന്നും വലിയ മാറ്റങ്ങളൊന്നും വരുത്തില്ല ചെറിയൊരു മാറ്റമേ ഉണ്ടാവുള്ളൂ പക്ഷേ പൈസ വല്ലാത്തൊരു രീതിയിൽ മാറും അതൊക്കെ ആണ് ഇതിൻ്റെ വലിയൊരു നെഗറ്റീവ് എന്നുവച്ചാൽ പിന്നെ വച്ചാൽ ഇതിൻ്റെ കൂടെ നമുക്ക് ഫോൺ മേടിക്കുമ്പോൾ വലിയ ആൻഡ്രോയിഡ് ഫോണൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഹെഡ്സെറ്റൊക്കെ കിട്ടും പക്ഷേ ഐഫോണിൻ്റെ കൂടെ അത് കിട്ടില്ല നമ്മൾ എക്സ്ട്ര വേറെ മേടിക്കേണ്ടി വരും നമ്മൾ പിന്നെ റേഡിയോ കണക്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ ഇതിൻ്റെ ഒരു ആപ്പ് സ്റ്റോറേജ് ഉണ്ട് അത് വല്ലാതെ ഒരു ആപ്പിന് കുറേ സ്റ്റോറേജ് പോകുണുണ്ട് പിന്നെ ഇവൾ ഇവരുടെ ഒരു ആപ്പ് മാത്രം നമുക്ക് ഐഫോൺ യൂസ് ചെയ്യാൻ പറ്റുള്ളു നമുക്ക് പുറത്തു നിന്ന് ഒരു ആപ്പ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയില്ല അങ്ങനെ ഇഷ്ടംപോലെ നെഗറ്റീവ് ഉള്ളൊരു സാധനം ആണ് ഐഫോൺ ഐഫോൺ എന്നു പറഞ്ഞാൽ പാവപ്പെട്ടവർക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ നിലവിൽ ഇപ്പോൾ ഐഫോണിൻ്റെ പൈസേനെ കുതിച്ചുയർന്നുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ കുറേ നെഗറ്റീവ് ഉണ്ട് ഈ ഫോണിന് ഇതൊക്കെ ആണ് ഇതിൻ്റെ വലിയൊരു നെഗറ്റീവെന്നു പറയുന്നത് ഒരു ഫിക്സിഡ് പ്രൈസ് എപ്പോഴും ഉണ്ടാവും അതിലൊരു മാറ്റവും ഐഫോൺ വരില്ല ഇതിൻ്റെ ഏക്സസ്സറീസ് ആണെങ്കിലും ഏക്സസ്സറീസിനൊക്കെ ഒരു ഇച്ചിരി ചില സമയങ്ങളിൽ ഒരു ആൻഡ്രോയിഡ് ഫോണോ രണ്ട് ആൻഡ്രോയിഡ് ഫോൺ മേടിക്കാം നമുക്ക് അത്രത്തോളം പൈസ നമുക്ക് ഇതിൻ്റെ ഒരു അതിന് ഏക്സസ്സറീസിന് നമുക്ക് പൈസ വരുന്നുണ്ട് അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ട് ഇതിൻ്റെ കൂടെ